ഞാന് ഒരുപാട് ഹാഡ് വർക്കെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോഴൊരു റിലാക്സേഷനുവേണ്ടിയാണ് ഞാൻ ബൈക്കെടുത്ത് ഈ കേരളം മൊത്തം കറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ അതൊരു നല്ല വൈബാണെന്നു തോന്നിയശേഷമാണ് ഞാൻ ഓൾ ഇന്ത്യ മൊത്തം പോവാൻ തുടങ്ങിയത് പിന്നീടത് അതിൻ്റെ ആ റൈഡ് കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ എല്ലാ വർഷവും മുടങ്ങാതെ ട്രിപ്പുകൾ പോവാറുണ്ട് ഒറ്റയ്ക്കുള്ള യാത്ര വളരെ മനോഹരമാണ് മഞ്ഞും മഴയും വെയിലും കാടും മേടും താണ്ടി ബൈക്കിൽ യാത്രചെയ്യുമ്പോള് പ്രത്യേക അനുഭൂതിയാണു ലഭിക്കാറ് അപ്പോഴതു വീണ്ടും വീണ്ടും ചെയ്യാനാണെനിക്കു താല്പര്യം കൂടി വരിക അല്ലാതെ കുറയാറില്ല അതിൽ ജീവിതത്തിലൊരു വളരെ സന്തോഷം കിട്ടുന്നൊരു മൊമെന്റാണ് അപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണെൻ്റെ പ്രചോദനമായത്